ആ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചില ചേരുവകൾ എല്ലാ വിഭവങ്ങൾക്കും പൊതുവായിട്ട് കോമ്മൺ ആയിട്ടുണ്ടാകും എല്ലാറ്റിനും ഉണ്ടാകുന്നതാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ നോക്കുകയാണ് വെച്ചാൽ ഇപ്പം നമ്മൾ മധുരത്തിന് ആയിക്കോട്ടെ എല്ലാവിടെയും നമ്മൾ പഞ്ചസാര വെല്ലം തന്നെയാണ് കൂടുതലും എല്ലാവിടെയും ഉപയോഗിക്കാറുള്ളത് ഇപ്പം ചായ അതുപോലെ തന്നെ നമ്മളുടെ ചായ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ പായസം ഉണ്ടാകുന്ന സമയത്തും മധുരത്തിന് നമ്മൾ ഇവിടെ കോമ്മണായിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് മസാലകൾ ആയിക്കോട്ടെ നമുക്ക് പൊതുവേ നമ്മൾ മലയാളികൾക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് മസാലകൾ ഒരുപാട് എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മലയാളികൾ അപ്പോൾ മസാലകൾ മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാല പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് മസാലകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാ വിഭവങ്ങൾക്കും കോമ്മണായിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ എരിവുള്ള എല്ലാ വിഭവങ്ങൾക്കും വറുക്കുന്ന അല്ലെങ്കിൽ കറി വെയ്ക്കുന്ന എല്ലാ വിഭവങ്ങൾക്കും ഈ മസാലകൾ എല്ലാം കോമ്മൺ ആയിട്ടുണ്ടാകും പിന്നെ തേങ്ങ അരച്ചിട്ടുള്ള തേങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ തേങ്ങ കൊണ്ട് പല വിഭവങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സാമ്പാറിന് ആയിക്കോട്ടെ തേങ്ങ വറുത്ത് അരച്ചിടും പായസത്തിന് ആയിക്കോട്ടെ തേങ്ങ അതിന്മേൽ തേങ്ങ ചിരകി ഇട്ടും അല്ലെങ്കിൽ തേങ്ങ യിലൂടെ നമ്മൾ പായസം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ എല്ലാ കൂടുതലായിട്ടും എല്ലാ വിഭവങ്ങൾക്കും ചേരുവകളായിട്ട് ഉപയോഗിക്കാറുണ്ട്